ഉണ്ട് എന്റെ വീടിന്റെ അടുത്ത് ഏതാനും ഏതാനും മിനുട്ടുകളുടെ സഞ്ചാരത്തിനപ്പുറം തന്നെ ആർട്ട് സപ്ലൈസ് സ്റ്റോറുണ്ട് ഞാന് ഇടയ്ക്കിടെയൊക്കെ അവിടെ പോയി പല സ്റ്റേഷനറി സാധനങ്ങള് വാങ്ങാറുണ്ട് എനിക്ക് കലയിലും കരകൗശലത്തിലും താത്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് കലയില് വരയ്ക്കാന് അത്യാവശ്യം ഇഷ്ടമാണ് അപ്പോൾ വരയ്ക്കാന് വേണ്ടിയുള്ള ഉപക ഉപകരണങ്ങള് വാങ്ങാനാണ് ഞാന് പൊതുവേ ആർട്ട് സപ്ലൈസ് സ്റ്റോറില് പോകാറ് അപ്പോൾ പല രീതിയിലുള്ള പെന്സിലുകള് ഞാന് പൊതുവേ വാങ്ങാറുണ്ട് സാധാരണയായി വാങ്ങാറുള്ളത് പെന്സില് വാങ്ങുക അതായത് പല നിറമുള്ള പെന്സിലുകളും അതല്ലാതെതന്നെ കറുപ്പിന്റെ തന്നെ പല തീവ്രതകളും ഉള്ള പെന്സിലുകളും ഇന്ന് ലഭ്യമാണ് അപ്പോൾ നമ്മള് ഇങ്ങനെ പല രീതിയിലുള്ള പെന്സില് വെച്ചാണ് വരക്കുകയും വരച്ചിട്ട് ഷെയിഡ് ചെയ്യുന്നതിനും ഉപകാരമായ പെന്സിലുകളും ഞാന് പൊതുവേ ഇങ്ങനത്തെ കടകളില് പോയി വാങ്ങാറുണ്ട് പിന്നെ ഇതല്ലാതെ ചെറിയ രീതിയില് പെയിന്റിംഗ് ചെയ്യാനും എനിക്ക് താത്പര്യമാണ് അപ്പോൾ ഈ വാട്ടര് കളറുകളായാലും അങ്ങനത്തെ നിറങ്ങളും ഞാന് പൊതുവേ വാങ്ങാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാന് പൊതുവേ ഈ ആർട്ട് സപ്ലൈസ് സ്റ്റോറില് പോയി വാങ്ങാറുള്ള ചില സാധനങ്ങള് പെന്സിലുകളാണ് ഞാന് ഏറ്റവും കൂടുതല് വാങ്ങാറ് പിന്നെ പെന്സിലിന്റെ കൂടെ തന്നെ പെന്സില് വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഇറേസറും ഷാര്പ്പനറും വാങ്ങാറുണ്ട് പിന്നെ മെക്കാനിക്കല് രീതിയിലുള്ള പെന്സില് അതായത് സ്വിച്ച് ഉള്ള പെന്സിലുകള് അതായത് ലെഡ് നിറക്കുന്ന പെന്സിലുകൾ കുറേ വാങ്ങാറുണ്ട് അതും ഈ വരയ്ക് വളരെയധികം അനുയോജ്യമായ രീതിയിലുള്ള പെന്സിലുകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാന് പൊതുവേ ആർട്ട് സപ്ലൈസ് സ്റ്റോറില് പോയി വാങ്ങാറുള്ളതും അവിടെ ആ സപ്പോസ് കടകളില് വേറെ പല രീതിയിലുള്ള ഉപകരണങ്ങളും ലഭ്യമാണ് പല രീതിയിലുള്ള പെയിന്റിംഗ് കളേഴ്സ് ആയാലും അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ അവെയിലബില് ആണ് അപ്പോൾ ഇതിന്റെ വിലക്ക് ഞാന് പൊതുവേ അവിടെ പോയി വാങ്ങാറുള്ളത് പിന്നെ ഇടക്ക് ചില രീതിയിലുള്ള മഷികളും അല്ലേല് പുതിയ രീതിയിലുള്ള ചില പശകളും വാങ്ങാറുണ്ട് ഈ പശകൾ വെച്ചു നമുക്ക് ചില സമയം നമ്മള് വരച്ചതോ അല്ലെങ്കില് നമ്മള് നിറം നിറച്ചിട്ടുള്ളതായ പെയിന്റിംഗുകൾ ചിത്രങ്ങൾക്കകത്ത് നമുക്ക് ചില കാര്യങ്ങള് ഒട്ടിക്കാന് വളരെയധികം ഫലപ്രദമായ രീതിയിലുള്ള പശകളും ഇടക്ക് അവിടെ പോകുമ്പോള് വാങ്ങാറുണ്ട് ഇതൊക്കെയാണ് ഞാന് പൊതുവേ ഇവിടെ അടുത്തുള്ള സമീപത്തുള്ള ആർട്ട് സപ്ലൈസ് സ്റ്റോറില് പോയി വാങ്ങാറുള്ളത് പെന്സിലുകള് തന്നെയാണ് ഇപ്പോഴും മുഖ്യമായി വാങ്ങുന്ന ഒരു ഉപകരണം